മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണ് ഇന്നത്തെ വർത്തമാന കാലങ്ങളിൽ ഒട്ടനവധി മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ പണ്ട് നമ്മൾ പത്രങ്ങൾ വരണമായിരുന്നു ഇന്നത്തെ വാർത്ത നാളെയായിരിക്കും നമ്മുടെ കൈകളിലേക്കെത്തുക പക്ഷേ ഇന്ന് ഒരഞ്ചു സെക്കൻ്റ് കൊണ്ട് നമ്മുടെ കൈയിലേക്കു വാർത്തകളെത്തുന്നുണ്ട് അതുപോലെത്തന്നെ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മനക്കണക്ക് കൂട്ടണമായിരുന്നു ഇന്ന് നമ്മുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്തുകൊടുക്കാം ഉടനടി റിസൽട്ട് കിട്ടുന്നുണ്ട് അതോടെ നമുക്ക് മറ്റൊരാളെ കാണാനും സംസാരിക്കാനും എല്ലാം ഇപ്പം നമുക്ക് മൊബൈൽ ഫോണിലൂടെ സാധിക്കുന്നുണ്ട് സംസാരിക്കാം വീഡിയോ കോള് ചെയ്യാം അതുപോലെത്തന്നെ നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോറ് ചെയ്തു വയ്ക്കാം നമ്മുടെ കാപ്ചർ മെമ്മറീസ് നമുക്ക് പിെന്ന അതുപോലെത്തന്നെ നമ്മുടെ അഡ്വാൻസ് ടെക്നോളജിയാണ് നമ്മൾ ഒരു കാര്യം കാണണം കേൾക്കാനും എല്ലാം കഴിയുന്നുണ്ട് അതുപോലെത്തന്നെ ഇപ്പം എന്തിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്കത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്യാം അതുപോലെത്തന്നെ ഒരുപാട് ആപ്പുണ്ട് ഇൻസ്റ്റാഗ്രാം ട്വിറ്റെർ അങ്ങനെ വാട്സപ്പ് പോലുള്ള ആപ്പുകളിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയിന്നുണ്ട് നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ പോലും നമ്മളിപ്പം അതിലാണ് ചെയ്യുന്നത് ഓഫ്ലൈനാണ് ഓഫ്ലൈനിൽ നിന്നു മാറി നമ്മളിപ്പം ഓൺലൈനിലേക്കു വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യാൻ തുടങ്ങി ഇപ്പം നമുക്ക് ഒരു ക്ലാസ്സ് അറ്റൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സ് അറ്റൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഓരോരോ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട മാറ്റം കൊണ്ടുവരാനും മൊബൈൽ ഫോണിന് കഴിഞ്ഞിട്ടുണ്ട്